ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വച്ചാൽ നമ്മൾ ആരെയും വിശ്വസിക്കരുത് എന്നുള്ളതാണ് കാരണം എന്താണെന്നു വച്ചാൽ ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ നമ്മൾ നമ്മൾ ഒരു ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടാണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലൊക്കെ കേൾക്കാൻ നമ്മൾ നമ്മളെ കേൾക്കുന്ന ഒരാൾ എന്ന ഒരാൾ ആണെന്ന് വിശ്വസിച്ച് നമ്മൾ ആ വ്യക്തിയോട് വളരെ സ്നേഹത്തോടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പിന്നെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യും ആ സമയത്ത് അവർ എല്ലാം നല്ല രീതിയിൽ ഭയങ്കര ഭയങ്കര താല്പര്യത്തോടു കൂടെ കേൾക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളും അവരെ വിശ്വസിക്കും കാരണം ആ ആൾ നമ്മളെ പൂർണ്ണമായിട്ടും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ഒരു തെറ്റായ ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാകും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ അവരുമായിട്ടും അവരോട് പറയും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഈ വ്യക്തി നമ്മൾ അവരിൽ വിശ്വസിക്കുകയും പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ മറ്റുള്ള പല കാര്യങ്ങളുമായിരിക്കും അങ്ങനെ നമ്മൾ അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തി എന്ത് ചെയ്യും ഈ വ്യക്തി മറ്റുള്ളവരോട് അതങ്ങനെ പറഞ്ഞ് നടക്കുന്ന പ്രവണത പലപ്പോഴും നമ്മൾ കാണുന്ന എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ആണ് അത് അപ്പം നമ്മൾ വിശ്വസിച്ച ഒരാളെ പറഞ്ഞ കാര്യം മറ്റൊരാളും അറിയരുതെന്ന് നമ്മൾക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ അത് മറ്റൊരാൾ മറ്റുള്ളവരുമായിട്ട് കാരണം ഈ ഒരു വ്യക്തിയോട് പറഞ്ഞ കാര്യം മറ്റു വ്യക്തികളിൽ നിന്നും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമുണ്ടാവും വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നും പിന്നെ നമ്മൾ ആ പറഞ്ഞ ആ വ്യക്തിയോടുള്ള വല്ലാത്ത ദേഷ്യവും ഒക്കെ നമുക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ നമ്മളെ സ്വന്തമാണെന്ന് കരുതുന്ന പലരും നമുക്ക് ശരിക്കും ആരുമല്ല കാരണം നമ്മളെ പറയുന്ന സങ്കടങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അവർ ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്